കുടുമ്പത്തിലേ സ്ത്രീകൾ മത്സ്യബന്ധനത്തിൽ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ആണുങ്ങളുടെ അത്ര കായികബലമില്ല അപകടങ്ങൾ കൂടുതലായത് കൊണ്ട് അവർക്ക് കടലിൽപ്പോകാൻ പേടിയും ഒക്കെയാണ് അതുകൊണ്ടാണ് സ്ത്രീകൾ കടലുമായി കൂട്തൽ ബന്ധപ്പെടാത്തത് കായികബലമായി നോക്കുകയാണെങ്കിൽ പുരുഷന്മാരാണ് കൂടുതൽ പക്ഷേ സ്ത്രീകൾ നമ്മുടെ വീടുകളിലൂടെ ഉള്ള പണികളും ഈ മീൻ കയറ്റിക്കൊണ്ടുപോകാനും വലയൊക്കെ എടുത്ത് വെക്കാനും അങ്ങനത്തെ ചെറിയ ചെറിയ പണികളിലൊക്കെ സ്ത്രീകൾ ഏർപ്പെടുന്നുണ്ട്

കുറെ സ്ത്രീകൾ പോകുന്നുണ്ട് കുറെ സ്ത്രീകൾ പോകുന്നില്ല ഏ നമ്മളുടെ പഴയ പണ്ടത്തേ സിനിമകളിലൊക്കെ പകുതി സ്ത്രീകളും അതിനകത്ത് കടലും മായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് അത്രയും ഒക്കെ തന്നെയാണ് ഈ ടോപ്പിക്കുമായി എനിക്ക് പറയാനുള്ളത്